ഹലോ ആ ഞാൻ തന്നെ ആ അതെ അതെ ആ ഞാനെ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നേ ആ ഓക്കെ അപ്പം ഞാൻ ഇന്ന് വീട്ടിൽ അല്ല ഉള്ളത് പുറത്ത് ഒരു സ്ഥലത്താണ് ഉള്ളത് അപ്പം അത് പറയാൻ വേണ്ടീട്ട് നിങ്ങൾ ഫുഡ് ഇങ്ങോട്ട് എത്തിക്കുമോ എന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ ആ അതെ അതെ നമുക്ക് ഒരു നാല് ബിരിയാണി വേണം പിന്നെ ഒരു ഫുള്ള് ബീഫ് മന്തിയും വേണം ആ വേണം വേണം അതെ ആ ഞാൻ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാന് ഇപ്പൊൾ ഉള്ളത് ഇവിടെയാണ് അടിവാരത്താണ് ഉള്ളത് ഇവിടെ താമരശ്ശേരിയാണ് ഉള്ളത് ആ ഒടുങ്ങാക്കാട് മുസ്ലിം പള്ളിയുടെ അവിടെയാണ് ഉള്ളത് അവിടുന്ന് ലെഫ്റ്റിലേക്ക് കേറി ആ പോക്കറ്റ് റോഡ് കേറി കൊറച്ച് ഇങ് വരുമ്പോ ഒരു മൂന്നൂർ മീറ്റർ വരുമ്പോൾ വലത്ത് സൈഡിൽ ഒരു വീടുണ്ട് അവിടെയാണ് ഉള്ളത് നിങ്ങൾ ഇവിടെ എത്തുമ്പം എന്നെ ഒന്ന് വിളിച്ചാൽ മതി കറക്റ്റ് ഡെസ്റ്റിനേഷൻ പറഞ്ഞു തരാം എനിക്ക് ഫുഡ് ഒന്ന് ഇവിടെ എത്തിച്ച് തരുമോ എന്ന് അറിയാൻ വേണ്ടീട്ടാണ് ഞാൻ ഇപ്പൊൾ വീട്ടിൽ ഇല്ല ആ ഓക്കേ നിങ്ങൾ ഇങ്ങോട്ട് എത്തുമ്പം എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഈ ഓർഡർ ചെയുന്ന ആളോട് പറഞ്ഞാ മതി ഞാൻ ഡെലിവറി ബോയിനെ നമ്പർ കോൺടാക്ട് നമ്പർ എന്തേലും പറയാം അല്ലെങ്കിൽ വിളിക്കണ നമ്പർ കൊടുത്താ മതി ഇവിടെ എത്തുമ്പം അവനോടു എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞേക്കാം ആ ലൊക്കേഷൻ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം നിങ്ങൾ എന്തായാലും എത്തുമ്പോൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ആ ഓക്കെ താങ്ക്യൂ എന്നാ